ഞങ്ങളുടെ ഗ്രാമത്തിലുള്ള ഒരു പ്രധാന സ്പോർട്സ് സെൻ്ററാണ് കൈരളി അത് എന്താ എന്ന് വെച്ചാൽ ചെറുപ്പം തൊട്ട് തന്നെ കുട്ടികളെ വളരെ അധികം മുന്നോട്ട് കൊണ്ടുവരാൻ കായിക ഇനത്തിൽ കായിക ഇനങ്ങളിൽ മുന്നോട്ട് കൊണ്ടുവരാൻ സഹായിക്കുന്നുണ്ട് ചെറുപ്പം തൊട്ടേ കുട്ടികൾക്ക് താല്പര്യമുള്ള കായികങ്ങളിൽ ഇനങ്ങളിൽ പരിശീലനം കൊടുക്കാനും അവരെ പരിശീലിപ്പിക്കാനും മുന്നോട്ട് കൊണ്ടുവരാനും വളരെ അധികം സഹായിക്കുന്ന ക്ലബാണ് കൈരളി അതുപോലെത്തന്നെ ഇവർക്കാവിശ്യമായ കായിക ഉപകരണങ്ങളിൽ കിറ്റുകളാണെങ്കിലും ബാറ്റ് ബോള് ജേഴ്സി മുതലായവയെല്ലാം ക്ലബ് നൽകുന്നുണ്ട് പിന്നെ അതുപോലെത്തന്നെ മികച്ച ആളുകൾ ഓരോ കായിക ഇനത്തിനെപ്പറ്റിയും മികച്ച അറിവുള്ള ആളുകൾ തന്നെയാണ് ഇതിന് നേതൃത്വം നൽകുന്നത് അത് വളരെ പ്രയോജനകരമായ ഒരു കാര്യം തന്നെയാണ് പിന്നെ എന്തെന്ന് വെച്ചാൽ ടൂർണമെന്റുകൾ സങ്കടിപ്പിക്കാറുണ്ട് ക്ലബ് ഈ ടൂർണമെന്റുകള് കുട്ടികൾക്ക് വളരെ അധികം പ്രയോജനം കൊടുക്കാറുണ്ട് മികച്ച കായിക താരങ്ങളെ കണ്ടെത്താൻ ടൂർണമെന്റുകൾ സഹായിക്കുന്നുണ്ട് അതുപോലെത്തന്നെ ഈ കായിക ഇനങ്ങളില് മികച്ച് നിൽക്കുന്ന സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് ധന സഹായങ്ങൾ നൽകാൻ നൽകുന്നതിനും ക്ലബ് സഹായിക്കുന്നുണ്ട് അതുപോലെ മികച്ച ഗ്രൗണ്ട് കളി സ്ഥലങ്ങൾ മികച്ചതാക്കി കൊടുക്കാൻ ക്ലബ് സഹായിക്കുന്നു പിന്നെ കുട്ടികളിൽ ഉണ്ടാകുന്ന മാനസിക പിരിമുറുക്കങ്ങൾ മാറ്റാൻ ഈ സ്പോർട്സ് സെന്റർ വളരെ അധികം സഹായകമാണ് കാരണം കുട്ടികൾക്ക് കായിക ഇനത്തിൽ നിന്നും മികച്ച ഒരു മനസ്സുണ്ടാക്കാൻ സഹായിക്കുന്നുണ്ട് അതുപോലെത്തന്നെ പെൺകുട്ടികൾക്ക് പ്രത്യേകിച്ച് പെൺകുട്ടി മടിച്ച് നിൽക്കുന്ന പെൺകുട്ടികൾക്ക് അവർക്ക് കായിക അവർക്ക് ഇഷ്ടപ്പെട്ട കായിക ഇനത്തിലേക്ക് മുന്നോട്ട് കൊണ്ടുവരാൻ ക്ലബ് വളരെ അധികം സഹായിക്കുന്നുണ്ട്